ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാദേശിക വാർത്ത ചാനലുകളാണ് കൂടുതൽ നമുക്ക് പ്രയോജനം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് കേന്ദ്ര വാർത്ത ചാനലുകളെ കാട്ടിലും കൂടുതലും പ്രാദേശിക വാർത്ത ചാനലുകളാണ് പ്രയോജനം കാരണം നമുക്ക് നമ്മുടേതായ പ്രദേശത്തെ കാര്യങ്ങളറിയുവാനും കേൾക്കുവാനും അതനുസരിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകാനും ഒക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാദേശിക വാർത്തകൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ ചെയ്തെങ്കിലേ നമ്മുടേതായ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് പറ്റത്തൊള്ളു പിന്നെ കൂടുതലായിട്ട് ലോക കാര്യങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വാർത്ത ചാനലുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു കട നടത്തുന്നൊരു വ്യക്തിയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ടും കേന്ദ്രത്തെ പറ്റി ഉള്ളത് കൂടുതലായിട്ടും അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല പ്രാദേശിക നമ്മുടെ ഇതായിട്ടുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ നടത്തുന്ന വാർത്തകളും വരുന്ന വിശേഷങ്ങളും ഒക്കെ നമ്മളറിഞ്ഞിരിക്കുക അറിയണം അറിയണം അറിഞ്ഞിരുന്നെങ്കിലേ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ട് പോകാനും ഇപ്പോൾ ഒരു സാധനങ്ങൾക്ക് വില കൂടിയാലും കുറഞ്ഞാലും അതൊക്കെ നമുക്കറിയണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകേം കാണുകേം ഒക്കെ ചെയ്യണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ അറിയാൻ സാധിക്കും നമുക്ക് കൂടുതലായിട്ടുള്ള അറിവ് കിട്ടാനായിട്ട് നമ്മുടെ പ്രാദേശിക വാർത്തകളാണ് നമ്മൾ കൂടുതലായിട്ടും നമുക്ക് കേൾക്കേ കേൾക്കേണ്ടി വരുന്നത് പിന്നെ നമ്മുടെ ആ ഒരു ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു വർത്തയ്ക്കകത്ത് വരുന്നതും അതെല്ലാം പെട്ടന്ന് അറിവ് പ്രാദേശിക വാർത്തയ്ക്കകത്താണ് അത് പെട്ടന്നൊരു അറിവ് നമുക്ക് കിട്ടാനായിട്ട് ഉള്ള ഒരു ചാൻസ് കിട്ടുന്നത് പിന്നെ കൂടുതലായിട്ട് പറയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഓരോരോ കോളേജുകളിൽ ചേർക്കുന്ന കാര്യങ്ങളാണേലും ഓരോ കോളേജുകളിലെ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് നമ്മളിങ്ങനെ നമ്മുടെ പ്രദേശത്തെ കോളേജുകളിലെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനെ പ്രാദേശിക വാർത്തകൾ കൊണ്ടൊക്കെ അങ്ങനെ കേട്ടൊക്കെയാണ് നമ്മളിപ്പം ഇങ്ങനെ അറിയുന്നത് അല്ലാതെ അതിനെപ്പറ്റി അറിയണമെന്നുള്ള നമ്മൾ കേന്ദ്രത്തിൽ നോക്കിട്ടൊന്നും കാര്യം ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാർത്ത ഈ പ്രാദേശിക വാർത്ത തന്നെ നമ്മൾ കേൾക്ക്കേം അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകേം ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു ഇതിനെ പറ്റിയൊക്കെ പറയാനായിട്ട് എനിക്ക്